എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്നു പറഞ്ഞാൽ ഫാൻ ആണ് അപ്പം ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്തുള്ളത് സീലിംഗ് ഫാനുമുണ്ട് ടേബിൾ ഫാനുമുണ്ട് അപ്പം രണ്ടും നല്ല രീതിയിലുള്ള ഫാനുകളാണ് ടേബിൾ ഫോൺ ഫാൻ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോവുക ഇപ്പോൾ ഇപ്പോൾ ഒരു റൂമിൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോവാൻ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ് സീലിംഗ് ഫാൻ ആണെങ്കിൽ നമുക്ക് എന്താണ് പറയുക ഇപ്പം നേരിട്ടുള്ളോരു കാറ്റ് ഇപ്പോൾ ടേബിൾ ഫാൻ ആണെങ്കിൽ നമുക്കിപ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ളൊരു കാറ്റായിരിക്കും പക്ഷേ ഇതാണെങ്കിൽ സീലിംഗ് ഫാൻ ആണെങ്കിൽ നമ്മുടെ മേലെ നിന്ന് കറക്റ്റ് എല്ലാ സ്ഥലത്തേക്കും കാറ്റ് എത്തുന്ന രീതിയിലായിരിക്കും ആ ഫാൻ അടിക്കുന്നത് അപ്പം നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ രണ്ട് ഫാനുകൾക്കും ഉണ്ട് അപ്പം വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല സീലിംഗ് ഫാനിൻ്റെ ഒരു നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നേരിട്ടടിക്കുന്നത് കൊണ്ട് നമുക്ക് ജലദോഷമോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റേ ഫാൻ ആണെങ്കിൽ നമുക്കിപ്പം ജലദോഷമോ കാര്യങ്ങളൊന്നും വലിയൊരു കാര്യമായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റ് മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ജലദോഷമോ കാര്യങ്ങളൊന്നും വരില്ല അപ്പം ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്